നീന്തൽ ഒരു മികച്ച വ്യായാമം ആണ് ഇപ്പം നീന്തുന്ന ടൈമിൽ ശരീരം മുഴുവനായിട്ടും വെള്ളത്തിൻ്റെ പ്രതിരോധത്തിനെതിരെയാണ് ചലിപ്പിക്കേണ്ടത് പിന്നെ നീന്തൽ നല്ലൊരു ഓൾ റൗണ്ട് പ്രവർത്തനമാണ് ഹൃദയമിടിപ്പ് നിലനിർത്താനായി ശരീരത്തിലെ സമ്മർദ്ദം കുറക്കാനായി സഹിഷ്ണുത പേശി ബലം ഹൃദയത്തിൻ്റെ ഫിറ്റ്നസ് എന്നിവയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആരോഗ്യകരമായ ഭാരം ഹൃദയം ശ്വാസകോശം എന്നിവ നിലനിർത്താനും നീന്തൽ സഹായിക്കുന്നുണ്ട് പേശികളെ ടോൺ ചെയ്യാനും പേശികളുടെ ശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ നീന്തലു കാരണം നമുക്ക് സഹായകമാകുന്നുണ്ട് പിന്നെ നീന്തൽ സമയത്ത് എല്ലാ പേശികളും ഉപയോഗിക്കുന്നത് കൊണ്ടു തന്നെ ശരീരത്തിന് മുഴുവനായിട്ടും ഒരു വർക്ക് ഔട്ട് നീന്തൽ കാരണം ലഭിക്കുന്നുണ്ട് ഉൽകണ്ഠ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളിൽ നിന്ന് സഹായം നേടാൻ സാധിക്കുന്നുണ്ട് തലച്ചോറിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നുണ്ട് എൻറ്റോഫിനുകൾ ശരീരത്തിൽ നിന്ന് പുറത്ത് വിടാൻ സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ശ്വസന പ്രക്രിയയ്ക്കാണ് ഏറ്റവും നല്ലൊരു ഇത് നീന്തൽ കാരണം ഉണ്ടാകുന്നത് നമ്മൾ നമ്മുടെ ശ്വസനത്തിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു ശ്വസന പ്രക്രിയ നമുക്ക് നീന്തൽ കാരണം നമുക്ക് ഉണ്ടാകുന്നുണ്ട്